ഞാൻ പുതുതായി എൻ്റെ കോളേജിലുണ്ടാക്കിയ കൂട്ടുകാരാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്തിനും ഏതിനും എൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ട് അതിനാൽ എനിക്ക് അവരെ ആകർഷിക്കും അവരെന്നേയും ആകർഷിക്കുന്നു ജീവിതത്തിൽ വേണ്ടതായ കുറച്ച് സംഭവങ്ങൾ വേ വേണ്ടപ്പെട്ട സംഭവങ്ങളാണ് കൂട്ടുകാർ ഒപ്പം ആവശ്യമുള്ള ഘട്ടത്തിൽ സഹായിക്കാനായി നിക്കുന്നവരാണ് കൂട്ടുകാർ ഞാൻ കണ്ടറിഞ്ഞ ഈ കൂട്ടുകാരില് ഇവരുടെ പേരുകൾ ഞാൻ പറയാം സൂരജ് ഫഹദ് ഇവരാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാർ ഇവരാണ് എന്നോട് സംസാ ഇങ്ങട് സംസാരിക്കാൻ വന്നിട്ട് ഞാൻ അവരെയും പരിചയപ്പെട്ടു ഞാൻ അവരെയും പരിചയപ്പെടുന്നു ആദ്യമൊന്നും എനിക്ക് അങ്ങനെ വലിയ താൽപ്പര്യമില്ലങ്കിലും പിന്നെ സംസാരിച്ചും ഇടപെട്ടും ഞങ്ങള് നല്ല കൂട്ടുകാരായി മാറുന്നു ഇതിൽ സൂരജെന്ന് പറയുന്നവൻ നല്ല കളി തമാശക്കാരനാണ് എന്തിനും ഏതിനും മുന്നിൽ നിൽക്കുന്നു നന്നായി സംസാരിക്കുന്നു ഇവര് എന്തിനും ഏതിനും എന്നെ കൊ ഞാൻ ഇവരുടെ ഒപ്പം നടക്കുന്നു കളികൾക്കും തമാശകൾക്കും ക്ലാസ്സിലെ ബോറടിക്കുമ്പോഴും ഇവരുടെ കൂടെ സംസാരിച്ചിരിക്കുന്നു ഇതിൽ ഫഹദ് എന്ന് പറയുന്നവൻ ഒരു നല്ല കുട്ടിയാണ് മനസ്സിൽ പഠിത്തം മാത്രമേ അവനുള്ളു അവൻ ദൂരെ നല്ല ദൂരെന്നാണ് ഇപ്പോഴും കോളേജിലേക്ക് വരുന്നത് ഇതേപോലെ കൂട്ടുകളുള്ള കൂട്ടുകാരുള്ളതിനാൽ എനിക്ക് നല്ല അഭിമാനമുണ്ട് സൂര്ജും ഫഹദിനേയും പോലുള്ള കൂട്ടുകാരുള്ളതിനാൽ എനിക്ക് വലിയ പ്രശ്നമില്ല എന്തിനും ഏതിനും എൻ്റെയൊപ്പം പറഞ്ഞ് തരാനും എന്നെ നേ മുന്നിലോട്ട് കൊണ്ട് പോകാനും അവരെൻ്റെ ഒപ്പമുണ്ട് കൂട്ടുകാരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ